സാങ്കേതിക വിദ്യ എങ്ങനെ സഹായിച്ചുണ്ടച്ചാല് ഒട്ടനവധി ഒട്ടനവധി പറഞ്ഞാൽ ഒട്ടനവധി തൊഴിലവസരങ്ങളാണ് സാങ്കേതിക വിദ്യ ഈ കാലത്ത് സൃഷ്ടിച്ചിട്ടുള്ളെ എന്താണ് പറയുക ഇപ്പോൾ ഒരു കഴിഞ്ഞാൽ മറ്റെ പണ്ടൊക്കെ പണ്ടത്തെ കാലത്തൊക്കെ ജീപ്പിലൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് അനൗൺസ് ചെയ്തിട്ട് ഇതേമാതിരി പോസ്റ്റർ അവിടെയും ഇവിടെയും ഒട്ടിച്ച് അങ്ങനെ ഒക്കെയായിരുന്നു പരസ്യങ്ങൾ ചെയ്തിരുന്നത് ഇപ്പോൾ ഒന്നിൻ്റെ ആവശ്യമില്ല ഒരു കടയിലിരുന്നിട്ട് ആ ഒറ്റ പോസ്റ്ററ് ഓൺലൈണിൽ അപ്ലോഡ് ചെയ്താൽ ഓലെ പരസ്യങ്ങൾ എല്ലായിടത്തും എത്തി രാജ്യത്തിൻ്റെ അല്ല ലോകത്തിൻ്റെ തന്നെ നാനാ ഭാഗത്തുമെത്തി പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ജീപ്പെടുത്ത് പോയാൽ ആ റൂട്ടിലിങ്ങനെ പരസ്യം ചെയ്ത് പോകാമെന്നല്ലാതെ ഇത് പുറത്തെക്കൊന്നും എത്തില്ലായിരുന്നു ഇപ്പം ഒരു ഒരു ക്ലിക്ക് ചെയ്താൽ മതി ഒരു പോസ്റ്ററുണ്ടാക്കിയി ട്ട് ഇൻസ്റ്റഗ്രാമോ അങ്ങനെ തുടങ്ങി ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡ്യാ പ്ലാറ്റ്ഫോമിൽ ഒന്ന് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമെത്തി അങ്ങനെ തുടങ്ങി ഒരുപാട് എന്താപ്പൊ പറയുക വെബ് ഡിസൈന് പോസ്റ്ററ് ഒരു ആനിമേഷൻ വീ എഫ് എക്സ് കണ്ടെൻ്റ് ഉണ്ടാക്കുക കണ്ടെൻ്റ് ക്രിയേറ്റർമാർ വീഡിയോ ഗ്രാഫർമാർക്ക് ഒരുപാട് ചാൻസ് ആണ് അത് പണ്ട് ഓൺലൈൻ ഓഫ്ലൈൻ കാലത്തെ നമ്മൾ ഫോട്ടോഷൂട്ടും വീഡിയോയുമൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ സാങ്കേതിക വിദ്യകളൊന്നു കൂടി വിപുലമായതോട് കൂടി എല്ലാവർക്കും വീഡിയോകൾ എടുക്കാനും അങ്ങനെ ഒക്കെയല്ലെ വീഡിയോ ഗ്രാഫർമാർകൊക്കെ ഒരുപാട് വേക്കൻസീസ് ആയി ഓഫ്ലൈനിൽ ഉള്ളവർക്ക് തന്നെ ഒന്നുകൂടി വിപുലമായ വേക്കൻസീസ് ആയി സാങ്കേതിക വിദ്യ ഒന്നുകൂടി പുരോഗമിച്ചതോടു കൂടി പിന്നേ എന്താണ് പറയുക അപ്പം ആപ്ലിക്കേഷൻ ഉണ്ടാക്കുക ഫോണിലാണെങ്കിൽ ഡിവൈസ്സ് ഫോൺ ഫോണുകൾക്കുള്ള ആപ്ലിക്കേഷൻസ്സ് ഉണ്ടാക്കുണോല് ആപ് ആപ് ആപ്പ് എഞ്ചിനീയർമാർ പിന്നെ അതുപോലെ ഒരുപാട് ഇത് ഈ സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്ന അതേ പോലെ ഇപ്പം പഠിക്കാനും കുട്ടികൾകൊക്കെ പഠിക്കാനിഷ്ടം സാങ്കേതിക വിദ്യ ബിരുദങ്ങൾ തന്നെ ആണ് കാരണം ഒരൂ ഏഐ ഏഐ ഒക്കെയാണ് ഇപ്പോഴത്തെ കാലത്തൊക്കെ ഏഐ തന്നെ ഇതായി ഏഐ വൻ പ്രചാരത്തിലായി എന്താണ് പറയുക എഐയുമായി ബന്ധപ്പെട്ട് കോഴ്സുകൾ എടുക്കാനാണ് ആൾക്കാർ ഇഞ്ഞു ഭാവി ഫ്യൂച്ചർ തന്നെ ഐലെന്നാരിക്കും ഏഐലെന്നേര്ക്കും കാര്യങ്ങൾ എളുപ്പമാക്കാനും സ്പീഡാക്കാനും ഒക്കെ ഏഐ തന്നല്ലോ പിന്നേ അതേപോലെ സോഫ്റ്റ്വയർ എഞ്ചിനീയർമാർ ആപ്ലിക്കേഷൻ ക്രിയേറ്റർമാർ അങ്ങനത്തെ ആപ്ലിക്കേഷൻ ക്രിയേഷന് സോഫ്റ്റ് എഞ്ചിനീയറ് അങ്ങനത്തെ ബീഎസ്സി ഐറ്റി ഇൻഫർമേഷൻ ടെക്നോളജി അതൊക്കെ ആണ് ഇപ്പോൾ കൂടുതലും കുട്ടികൾ പഠിക്കുന്നത് എന്താണ് പറയുക കാര്യമായിട്ട് ഏഐ തന്നെ ഏഐ കോഴ്സ് തന്നെ ആണ് ആൾക്കാർ പഠിച്ചു കൊണ്ടിരിക്കുന്നത് വിദ്യാർഥികൾ കൂടുതലും പഠിച്ച് ഇറങ്ങുന്നതും ജോലി സാധ്യതകളൊക്കെ അനേക്കായില് വന്നു കൊ ണ്ടിരിക്കുകയാണ് ഇനി ഭാവി അതാവുമല്ലോ ഏഐ ആവുമല്ലോ